നമ്മുടെ വീട്ടിലൊരു പൂന്തോട്ടം പൂന്തോട്ടം പരിപാലിക്കുക എന്നുള്ളത് വളരേ ചിലവേറിയ ഒരു കാര്യമാണ് അതായത് നമ്മളെ ഒരു ചെടി ചെടി മേടിക്കാൻ ചെന്നാൽത്തന്നെ അതിന് ഭയങ്കര വിലയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്ക് ചട്ടികളും മേടിക്കാൻ കിട്ടും അത് അഴുക്കാണ് അതു വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അതു പൊട്ടി പോവുകയും അതേസമയം മൺചട്ടി ആണെങ്കിൽ നമുക്കത്രയും കുഴപ്പമില്ല അതു തന്നെയല്ല ഈ ചെടികളൊക്കെ മേടിക്കാൻ ചെന്നാൽത്തന്നെ ഭയങ്കര വിലയാണ് അതു നമ്മൾ പരിപാലിക്കണമെങ്കിൽ അതിനു നമുക്ക് എല്ലുപൊടി വേണം മറ്റേ എല്ലുപൊടി പിന്നെയെന്താ ചകിരിച്ചോറ് ചാണകം അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടു കൊടുത്തു കഴിയുമ്പം നല്ലതായിട്ട് ഇത് നല്ല എല്ലാം മേടിക്കുന്ന ചെടികളെല്ലാം നല്ലതാണ് അതിനു പക്ഷേ ഭയങ്കര വിലയുമാണ് നമ്മളതിനെ പരിപാലിക്കണമെങ്കിൽ ഈ വളങ്ങൾ ഇതെല്ലാം മേടിക്കുമ്പോൾതന്നെ ഒരു തുകയാകും അങ്ങനെ അതു ചിലവേറിയ ഒരു പദ്ധതി ചിലവേറിയത് ഒരു ഇതാണ് ഈ പൂന്തോട്ടം പരിപാലിക്കുക എന്നുള്ളത് പിന്നെ അതു തന്നെയല്ല പൂന്തോട്ടം ഇഷ്ടമുള്ളവർക്ക് എത്ര രൂപ ചിലവായാലും അതിനെ പരിപാലിക്കാൻ എത്ര ചിലവാണെങ്കിൽപോലും അവർ പരിപാലിക്കാൻ തയ്യാറായിട്ടുള്ള ഒത്തിരി ആൾ അംഗങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോഴുണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ ചെടിയോടുള്ള ഇഷ്ടം താൽപര്യമുള്ള അംഗങ്ങളാണ്